ആ ഇത് എടത്തുവായിലുള്ള ആ മന്ന ഇത് ലൈബ്രറി ഇത് ആ ആ ഷോപ്പ് അല്ലേ ആ ആ ആ എനിക്ക് ഒരു ഇത് പുസ്തകം വേണമായിരുന്നു അതിന് വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത് ഇന്നാൾ രണ്ടാഴ്ച ആ ഞാൻ ഒരു രണ്ട് കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ എനിക്ക് പിന്നെ എടുത്തില്ലായിരുന്നു ബെല്ല് പോകുന്നുണ്ടായിരുന്നു എന്തോ ആ ആ ആ അതുകൊണ്ടായിരിക്കും പിന്നെ എന്നായിരുന്നു ആ എന്നതാണോ എനിക്ക് വല്ല മഹാത്മാക്കളടെ വല്ലതും അങ്ങനത്തെ ഒക്കെ വല്ല ഏതാണ് ആ വലിയ ആ അങ്ങനെ ഈ വിശുദ്ധൻമ്മാരുടെയൊക്കെ ആ അവരുടെ അങ്ങനത്തെ എന്തെങ്കിലും ആ അങ്ങനത്തെ ആ ഏതെങ്കിലുവൊര് പുസ്തകം മതി അന്നേരം ഇത് ഇനി എങ്ങനെയാണ് അന്നേരം പിന്നെ ഞാൻ അവിടെ വന്നു വാങ്ങിക്കണമല്ലേ

ആണ് അല്ലേ ആ ആ ആ അന്നേരത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവുകയില്ലേ നമ്മൾ എക്സ്ട്രാ ഇതൊക്കെ പൈസ ആ ഫൈൻ അടയ്ക്കണ്ട വരുകയല്ലേ ആ അങ്ങനെ കീറാനും പാടില്ല എല്ലാം നല്ല സുരഷിതമായിട്ട് ഏൽപ്പിക്കണം തിരിച്ച് ഏൽപ്പിക്കണം ആ ആ ആ ആ പിന്നെ എന്തായിരുന്നു ഇനി ഇപ്പം ഞാൻ ആ അതിലെ വരുമ്പോൾ ഞാൻ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ അതിലെ ഒന്ന് ഇറങ്ങുന്നുണ്ട് അന്നേരത്തേക്കിന് ഞാൻ അവിടെ വന്ന് വാങ്ങിച്ചോളാം അന്നേരത്തേക്കിന് എനിക്ക് ഒരു പുസ്തകമേ തരത്തുള്ളുഓ ആ അതുകൊണ്ടല്ലേ എനിക്ക് അന്നേരം ഒരൂ ഒരു പുസ്തകമേ ആ അതാണ് ചെന്ന് അവിടെ കണ്ടു കഴിയുമ്പം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് വാങ്ങിക്കുക പിന്നെ അത് തന്നെയല്ല എനിക്ക് അന്നേരം ഒരു പുസ്തകമേ തരത്തുള്ളു അല്ലേ ആ അതെ ഒരു ആഴ്ചക്കുള്ളിൽ എല്ലാം ഈ ഏൽപ്പിക്കുകയും ചെയ്യണമല്ലേ അതാണ് ആ അത് തന്നെ പിന്നെ ആ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് മെമ്പർഷിപ്പൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ അങ്ങ് വേറെ ഇ മെമ്പർഷിപ്പൊക്കെ മെംബറായിരിക്കണം അല്ലേ അന്നേരത്തേക്കിന് നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിനൊക്കെ വന്നാൽ പുസ്തക എടുക്കുകയും ചെയ്യാം എടുത്ത് കൊണ്ടു പോകാം ആ എന്നാലും അതിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലേ തിരിച്ച് എല്ലാം ചെയ്യുകയും എടുക്കുകയുമൊക്കെ വേണമല്ലോ എല്ലാത്തിനും ഒരു ഇത് ഉണ്ടല്ലോ അല്ലാതെ എങ്ങനെ ആൾക്കാരൊക്കെ വന്നു എല്ലാ ദിവസവും വന്നു വാങ്ങിക്കുകയൊക്കെ ചെയ്യും അല്ലേ എല്ലാവരും നല്ല ആ കറക്റ്റ് ആയിട്ട് ആ എന്തെങ്കിലും ആ പിന്നെ തീർച്ചയായിട്ടും അതേച്ചാല് എന്തെങ്കിലും വൈകി കഴിഞ്ഞാൽ വിളിക്കും അല്ലേ ആ അവിടെ നിന്ന് വിളിച്ച് എത്തിക്കാനായിട്ട് ആ കൊടുക്കാം

പിന്നെ ആ കറക്റ്റാണ് അത്കൊണ്ട് ഒന്ന് കഴിയും ആ ശരി എന്നാൽ ഞാൻ ഒര് രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ അവിടെ കാണുമല്ലോ ആ ആ ആ ശരി ശരി എന്നാൽ ആ ഓക്കെ ഓക്കെ